ഈ അടുത്ത വർഷങ്ങളിലായി ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയിൽ വളരെ മികച്ച വികസനവും വളർച്ചയൊക്കെയുണ്ട് അതായത് നമ്മൾ പണ്ട് നമുക്കൊന്ന് കറണ്ട് ബിൽ അടയ്ക്കണമെങ്കിൽ നമുക്ക് ഓഫീസിൽ പോയി അടയ്ക്കണമായിരുന്നു അതുപോലെ തന്നെ ഒരാൾക്ക് പൈസ കൊടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നാൽ ഫുഡ് മേടിക്കാൻ ആണെങ്കിലും എല്ലാം അപ്പോഴപ്പോൾ പെയ്മെന്റ് ചെയ്യേണ്ടതായിരുന്നു നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും മേടിക്കാനോ തിന്നാനോ അല്ലെങ്കിൽ ഒന്നിനും കഴിയില്ലായിരുന്നു എന്നാൽ ഈ കാലത്ത് നമ്മുടെ ഇന്ത്യ അതിൽ മികച്ചു വരുന്നുണ്ട് അതായത് ഗൂഗിൾ പേ ഫോൺ പേ അങ്ങനത്തെ തുടങ്ങിയ ആപ്പുകളൊക്കെ വന്നതോടുകൂടി നമ്മുടെ ബേങ്ക് ട്രാൻസ്പോർട്ടേഷൻ നടക്കും അതായത് ബാങ്കിൽ നിന്ന് ക്യാഷ് നമ്മുടെ ഫോണിലുണ്ട് അതായത് നമുക്കിപ്പോൾ ഒരു ഫുഡ് കുറച്ച് ഫുഡ് വാങ്ങണമെങ്കിൽ ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ നമുക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് അങ്ങനെ നമുക്ക് പൈസ വേറൊരാൾക്ക് കൊടുക്കാം അതുപോലെതന്നെ നമുക്കിപ്പോൾ വേറൊരാൾക്ക് പൈസ കൊടുക്കണമെങ്കിലോ എന്തിനേലും പൈസ കൊടുക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക് അവരുടെ അടുത്ത് പോയി കൊടുക്കുകയോ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കിപ്പോൾ എവിടെ ഉള്ളവർക്കാണെങ്കിലും നമുക്ക് ഗൂഗിൾ പേ വഴി നമുക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ ആ കാര്യത്തിലൊക്കെ നമുക്കിപ്പോൾ നമ്മുടെ ഇന്ത്യ മികച്ചതായി വരുന്നുണ്ട് അതുപോലെതന്നെ ബാങ്കിലേക്ക് ക്യാഷ് ഇടണമെങ്കിലോ ബാങ്കിൽ നിന്ന് ക്യാഷ് എടുക്കണമെങ്കിലോ എല്ലാവിധ കാര്യങ്ങളും നമ്മുടെ ഫോൺ വഴി നമുക്ക് ചെയ്യാവുന്നതാണ്